ഞാന് ആമസോണിൽ നിന്ന് ഒരു എനിക്ക് ഭയങ്കര ആഗ്രഹാമാരുന്നു എനിക്ക് ഈ ഫോട്ടോ എടുക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞാന് ആമസോണിന്നാണ് ഓര്ഡര് ചെയ്തത് പിന്നെ ക്യാമറ നല്ല ക്യാമറയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി നല്ല ക്വാളിറ്റി ഉണ്ട് നല്ല അതായത് നമുക്ക് നല്ല ക്ലിയര് ആണ് പിന്നെ നമുക്ക് ഹാന്ഡില് ചെയ്യാനും സൂപ്പറാണ് നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഹാന്ഡില് ചെയ്യാം ഭയങ്കര അവര് നല്ല പാക്കേജ് ഒക്കെ അവര് സൂപ്പറായിരുന്നു ക്യാമറ പാക്കേജും ഗ്ലാസും ഒക്കെ നല്ല നീറ്റായിട്ട് പാക്ക് ചെയ്തിട്ടാണ് നമുക്ക് തന്നത് പിന്നേ നമുക്ക് പറ്റാവുന്ന എമൗണ്ടില് അമ്പതിനായിരം രൂപേന്റെ ആണ് ഞാന് വാങ്ങിയത് പക്ഷെ നല്ല എനിക്ക് ഭയങ്കര ഇഷ്ടമായി നമ്മള് പൈസ കൊടുത്തതിനുള്ള മുതൽ ഉണ്ടായിരുന്നു അതില് ക്യാമറ ആണെങ്കിൽ തന്നെ നല്ല നല്ല ക്ലാരിറ്റി ഉണ്ടായിരുന്നു എനിക്കിഷ്ടായി അത്